കേരളത്തിലെ ആളുകള് അവരുടെ സര്ഗ്ഗാത്മകത പല രീതിയിലാണ് പുറത്ത് കാഴ്ച വെയ്ക്കുന്നത് പലരും അവരുടെ വരയ്ക്കാനുള്ള കഴിവ് അല് അവർ അവരുടെ ഉള്ളിലുള്ള ആ കലാകാരന് ആ അതിനെ പുറത്തേക്ക് ആള്ക്കാര് കൊണ്ടുവരുന്ന രീതി പല രീതിയിലാണ് നമുക്ക് ഒരു ആര്ട്ടിസ്റ്റ് അല്ലാതെ വാ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ കഴിവിന് വേണമെങ്കില് ഒരു ലേഖനമോ ലേഖന രൂപത്തിലൂടെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു പുസ്തകരൂപത്തില് കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു പദ്യത്തിന്റെ പദ്യ രൂപത്തിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു ചെറുകഥ രൂപത്തിലും കൊണ്ടുവരാം അങ്ങനെ പല പല രീതികളുണ്ട് അല്ലെങ്കില് സംഭാഷണം സംഭാഷണ രീതിയിലും അല്ലെങ്കിൽ പല പല രീതിയിലും അതേപോലെ തന്നെ ഒരു വരക്കാന് കഴിവുള്ള നല്ല ചിത്രം ചിത്രം ചിത്രകാരന് ചിത്രകാരന് അല്ലെങ്കിൽ ഒരു ശില്പിക്ക് അദ്ദേഹത്തിന്റെ കഴിവുകള് ഒരു ഭക്ഷണ സാധനം അത് എങ്ങനെ ആള്ക്കാരിലേക്ക് അതെങ്ങനെ ആള്ക്കാരെ കണ്ണുകളാല് രുചികരമാക്കാം എന്നുള്ള രീതിയിലും അവരവർ അതിന് ആലോചിക്കുകയും അതിനെ തന്നെ നമുക്ക് പല രീതിയില് ആവിഷ്കാരം ചെയ്യുവാനും പറ്റും അതുപോലെ തന്നെ ഒരു പാട്ടുകാരന് അദ്ദേഹത്തിന്റെ സംഗീത ശൈലിയില് കൊണ്ടു വരുന്ന അദ്ദേഹത്തിന്റെ സംഗീത ശൈലിയില് ഉപയോഗിച്ചു കൊണ്ട് അദ്ദേഹത്തിന് പല പല രീതിയിലും അതിനെ പുറത്തേക്ക് കൊണ്ടു വരാം അദ്ദേഹത്തിന്റെ ഒരു സാ ഹാസ്യരൂപത്തില് കൊണ്ടു വരാം അല്ലെങ്കില് വീര്യരൂപത്തില് കൊണ്ടു വരാം അങ്ങനെ പല രീതികളിലും നമുക്കൊരു ഹാസ്യ രംഗത്തെക്കുറിച്ച് ആലോചിക്കാണെങ്കില് അതിനെയൊരു പാട്ടിന്റെ രൂപത്തിലെങ്ങനെ കൊണ്ടു വരാന് പറ്റും എന്നുകൂടി ആലോചിച്ച് ചെയ്യുന്നവരും ഉണ്ട് അങ്ങനെ പല പല കഴിവുകളും അത് പല രീതിയിലും ഉപയോഗിക്കുന്നവരുമാണ് കേരളീയര്